സാഹിത്യത്തിലും കവിതയിലും പ്രത്യേകിച്ചും നല്ല മറ്റ് ആവിഷ്ക്കാരങ്ങളെക്കാൾ സാഹിത്യത്തിലും കവിതയിലുമാണ് കൂടുതൽ മലയാളഭാഷ നമുക്ക് കൂടുതൽ പരിചയമായി തോന്നണത് കാരണം നമുക്ക് വായിക്കുമ്പോൾ മലയാളഭാഷ ഇത്രയും ഇത്രയും കാര്യങ്ങൾ നമ്മിൽ എളുപ്പത്തിൽ എത്തിക്കാൻ ഭാഷയ്ക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് നമ്മൾക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട് ശരിക്കും മലയാളം നമുക്ക് ഇത്രയും ഒരു ബഹുത്തായ ഭാഷയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോഴാണ്

എന്ന് തോന്നിപ്പോവുന്ന ചിലപ്പോൾ അസൂയ തോന്നുന്ന രീതിയിലാണ് നമ്മുടെ മലയാളഭാഷ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മലയാളത്തിന്റേത് തന്നെ ആയിട്ടുള്ള കഥകളിയോ കൂടിയാട്ടം അങ്ങനെ ഒക്കെ ഉള്ള കലാരൂപങ്ങളുടെ ഭാഷയും പ്രത്യേകിച്ച് അന്യം നിന്നുപോവുന്ന മറ്റ് കല കലകളിൽ ഉപയോഗിച്ച ഭാഷകളും ഒക്കെയും തന്നെ മലയാളത്തിന്റെ ബ്രഹത്തായ ഒരു പാരമ്പര്യവും കൂടെ നമ്മളെ നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ് അങ്ങനെ വെച്ചു നോക്കുമ്പോഴത്തേക്ക് മറ്റ് ഭാഷകളെക്കുറിച്ച് നമ്മൾക്ക് വളരെ വലുതായിട്ട് അറിയില്ല എങ്കിലും പക്ഷേ നമ്മുടെ മലയാള ഭാഷ ശരിക്കും ഒരു നല്ല ബൃഹത്തായ നമ്മുടെ ആശയങ്ങളെ എന്താണ് കവി ഉദേശിക്കുന്നത് എന്ന് നമുക്ക് ശരിക്കും മനസിലാവുന്ന രീതിയിൽ തന്നെ നമ്മുടെ മലയാള ഭാഷ നമുക്ക് അനുഭവേധ്യം ആവുന്ന ഒന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ള പല കവിതകളും നമ്മളിപ്പോഴും നമുക്ക് ഓർമയിൽ പല അവസരങ്ങൾ വരുമ്പോഴും നമുക്ക് പലതും ഓർത്തെടുക്കാനും നമ്മൾ മുമ്പ് പഠിച്ച ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കവിതകൾ നമുക്ക് അനുഭവം പല ഇപ്പോഴുള്ള പല അനുഭവങ്ങളിലും വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഓടി എത്താറുണ്ട് ആ കവിതകൾ നമ്മൾ വായിച്ച കഥകൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചണ്ഡാലഭിക്ഷുകി ആവട്ടെ നളിനി ആവട്ടെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഉള്ള പലരും നമ്മൾ മുമ്പ് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് പക്ഷേ എങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന പല സർകംസ്റ്റാൻസസിൽ അത് നമുക്ക് നമുക്ക് അറിയാതെ നമ്മൾ ഓർത്ത് പോവുന്നു അപ്പോൾ അത്രയും തന്നെ നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷ നമ്മുടെ സ്വകാര്യസ്വത്തായിട്ടുള്ള നമ്മുടെ ഭാഷ മലയാള ഭാഷ വളരെ നല്ല ഒരു ഭാഷ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്